ഹലോ ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ അല്ലേ ഡോക്ടറേ ഡോക്ടറല്ലേ ഡോക്ടറേ എനിക്ക് രാവിലെ തൊട്ട് ഭയങ്കര വൊമിറ്റിംഗും ലൂസ് മോഷനൊക്കെയാണ് ഫീവറൊക്കെയുണ്ട്

രാവിലെ അത് ഇന്നലെ രാത്രി പൊറോട്ട മേടിച്ചായിരുന്നു അത് ചൂടാക്കി കഴിച്ചതാണ് ഫുഡ് പോയ്സൺ വരുമ്പോൾ ഫീവറൊക്കെ വരുമോ ആണോ അതിനിപ്പോൾ ഞാനിപ്പോഴെന്താ ചെയ്യണ്ടേ അല്ല ഭയങ്കര തലവേദനയൊക്കെയുണ്ട്

ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബി പി കുറഞ്ഞതിൻ്റെ വല്ല ലക്ഷണമൊന്നും ആയിരിക്കില്ലല്ലോ ഇത് ഫുഡിൻ്റെ തന്നെയാണോ ഓ അല്ല അപ്പോൾ ഈ കൊറോണേൻ്റ സിംപ്റ്റംസ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ

എനിക്ക് വയ്യ പറ്റണില്ല കിടക്കുകയാണ് ഞാനിപ്പോൾ എണീക്കാൻ പറ്റണില്ല പാരസെറ്റ് ഇപ്പോൾ പരസെറ്റമോള് കഴിച്ചാൽ മാറുമോ

വ്യക്തമായില്ല ഒന്നുകൂടി പറയുമോ ഓ പാരസെറ്റമോളുതന്നെ വേണം എന്ന് നിർബന്ധം ഇല്ലല്ലോ ഡോളോ കഴിച്ചാലും പോരെ

ലൂസ് മോഷൻ ഇപ്പം ലൂസ് മോഷൻ പോട്ടേ വോമിറ്റിംഗ് അപ്പോൾ എങ്ങനെയാണ് വന്നത് രണ്ടും കൂടി ഒരുമിച്ചാവില്ലല്ലോ

ഓക്കെ ഡോക്ടർ താങ്ക് യൂ